ഹലോ

ആ എനിക്കൊരു വീട് പണിയാന് വേണ്ടിയായിരുന്നു ആ ഹൗസിങ് ലോണായിരുന്നു ആ മ്മ് എനിക്കൊരു ഇരുപത്തിയഞ്ച് ലക്ഷമെങ്കിലും വേണ്ടിവരും ആ ആ ഞാനിപ്പം ഞാനിപ്പം ഗവൺമെൻറ്റ് കോളേജിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് ആ ആ സാലറി സ്ലിപ്പുണ്ട് ആ ലാൻഡുണ്ട് ലാൻഡുണ്ട് ആ എനിക്കൊരു ആറേക്കർ സ്ഥലമുണ്ട് ആ പട്ടയമുള്ള സ്ഥലമാണ്

ലാൻഡ് മാത്രം പോരേ സ്ഥലം കട്ടപ്പനയായിരുന്നു ആ

ആണല്ലേ ഈ ആ ഓക്കേ എത്ര സമയമെടുക്കുമായിരിക്കും ഈയൊരു ലോണൊന്ന്

പതിനഞ്ച് ദിവസത്തെ സമയമെടുക്കുമല്ലേ

ആ ഓക്കെ ലിസ്റ്റ് വാട്സാപ്പ് ചെയ്യുമോ ആ ഓക്കേ ഈ ആറേക്കർ സ്ഥലവും സാലറി സ്ലിപ്പുംകൂടെ ആവശ്യമില്ലല്ലോ ഇരുപത്തിയഞ്ച് ലക്ഷമല്ലേയുള്ളൂ

ആ ഓക്കേ ആ ആണല്ലേ എനിക്ക് ഈ എനിക്കൊരു രണ്ടു കൊല്ലത്തെ സമയം വേണമായിരിക്കും പറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണം ആദായമുണ്ടല്ലോ ആദായം എടുക്കുന്നുമുണ്ട് സാലറിയുമുണ്ട് ഓക്കെ ഓക്കെ എനിക്ക് ഏലമാണ് പണിക്കാരുണ്ട് പണിയിപ്പിക്കുന്നുണ്ട്

വര്ക്കിങ്ങാണ് ആ ആ ഗവണ്മെൻ്റ് ജോബ് തന്നെയാണ് ആ ആ കുറച്ചും കൂടി എമൗണ്ട് കിട്ടാനും സാധ്യതയുണ്ടല്ലോ മീന്സ് വേറെ ലീഗൽ പ്രൊസീജിയേഴ്സ് പ്രശ്നമുണ്ടായിരിക്കില്ലല്ലോ ആണല്ലേ

ആ ഓക്കെ ഓക്കെ ആ എന്നാല് ഇതൊന്ന് അറിയാന് വേണ്ടിയായിരുന്നു കേട്ടോ സാര് എന്നാല് ആ ആ ശരി കേട്ടോ ആ ആ ആ ഓക്കെ സാർ എന്നാല് ബാക്കിയൊന്ന് വാട്സാപ്പ് ചെയ്തേക്കൂ താങ്ക് യൂ കേട്ടോ ആ ഓക്കെ താങ്ക് യൂ സാർ ശരി ആ ഓക്കെ സാർ താങ്ക് യൂ സാർ ഓക്കെ ആ ആ ഇതുതന്നെ ആ ഇതുതന്നെ ഓക്കെ അതെ ഞാനങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാം സാർ ആ ഓക്കെ സാർ

ആ ഓക്കെ ആ ഓക്കെ സാർ ശരി ആ ഓക്കെ സാർ ശരി ആ ആ